ഇപ്പോൾ നമ്മൾ കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നത് നല്ലൊരു കാര്യമാണ് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പൊരു മലയാളം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിച്ച ഉടനെ തന്നെ മലയാളം കേട്ടിട്ടാണ് വളരുന്നത് അപ്പം നമ്മൾ നമ്മൾ പഠിച്ചത് പോലെ തന്നെ മലയാളം അത്യാവശ്യമായിട്ടുള്ളൊരു ഘടക ഘടകമാണ് അപ്പം അത് മാതൃഭാഷയെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ മലയാളികളുടെ മെയിനായിട്ടുള്ള ഒരു ഭാഷയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മലയാളമാണ് ഇപ്പം പല സംസ്ഥാനങ്ങളിലും പല രീതിയിലുള്ള ഭാഷകളും കാര്യങ്ങളൊക്കെയാണ് അപ്പം അത് മെയിൻ ആണ് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കർണാടകയിലാണെങ്കിൽ കന്നഡ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തമിഴ്നാട്ടിൽ തമിഴ് അങ്ങനെ പലരീതിയിൽ അവർ അവർ അവരുടേതായിട്ടുള്ള ഭാഷകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമ്മൾ മലയാളികൾ നമ്മുടെ രീതിയിലുള്ള ഭാഷകളും കാര്യങ്ങളൊക്കെ ആണ് യൂസ് ചെയ്യുന്നത് അപ്പം അത് നമുക്ക് മെയിനായിട്ടുള്ളൊരു കാര്യം ആണ് അപ്പം മലയാളം നമുക്ക് എന്താ പറയുക ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പം നമ്മൾ നമ്മളാ പഠിച്ചതു പോലെ തന്നെ നമ്മുടെ കുട്ടികളും മലയാളം പഠിക്കണം എന്ന് എനിക്ക് അതിയ അതിയായ ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ കൂടുതലായിട്ടും കുട്ടികളെ ചേർക്കുന്നെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയം കാര്യങ്ങളൊക്കെ ആണ് പക്ഷെ അതിനെക്കാട്ടിലും നല്ലത് മലയാളം മീഡിയം തന്നെ ആണ് മലയാളത്തിൽ അവർക്കിപ്പോൾ ഉള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ എഴുതാനും വായിക്കാനും ഒന്നും അങ്ങനെ വലിയ രീതിയിലൊന്നും അറിയില്ല അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ മലയാളം പഠിക്കണമെങ്കിൽ മലയാളം മീഡിയം കാര്യങ്ങളൊക്കെ നല്ലതാണ്